ഇപ്പം ഗ്രാമീണ അധ്യാപകന രീതിയെക്കുറിച്ച് പറയുവാണെങ്കിൽ അവർ അവരും അത്യാവശ്യം പഠിച്ചിട്ടു തന്നെയായിരിക്കും നമുക്ക് ക്ലാസ്സിൽ ക്ലാസ്സെടുത്ത് തരുന്നതൊക്കെ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചാൽ പഠിച്ച് പഠിച്ചാൽ മതി അല്ലെങ്കിൽ പഠിക്കണ്ട ആ ഒരു മൈൻഡിലാണ് പിന്നെയെന്ന് വെച്ചാൽ കൂടുതൽ സർക്കാർ സ്കൂളുകളിലാണ് കുട്ടികൾ പഠിക്കുക അപ്പോൾ അവർക്കിപ്പം നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അവർക്ക് എങ്ങനെ ആണെങ്കിലും ശമ്പളം കിട്ടും അപ്പോൾ ആ ഒരു മൈൻഡിലായിരിക്കും കൂടുതൽ പേരും പക്ഷേ എല്ലാവരെയും നമ്മളങ്ങനെ പറയുന്നില്ല ഒരു അൻപത് ശതമാനം പേര് ഒരു എഴുപത് ശതമാനം പേരിലൊരു നൂറ് ശതമാനം പേരിലൊരു മുപ്പത് ശതമാനം പേരും അങ്ങനെ ആയിരിക്കും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നഗരത്തിൽ വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതലും പ്രൈവറ്റ് സ്കൂളുകളിലായിരിക്കും കുട്ടികളെ കൂടുതലും ചേർക്കാൻ നോക്കുന്നത് കാരണം അവിടെ എങ്ങനെ പോയാലും എല്ലാ കുട്ടികളും നല്ലോണം പഠിക്കും കൂടുതലും ഇംഗ്ലീഷ് മീഡിയം അങ്ങനത്തെ ഇതിലൊക്കെയാണ് കുട്ടികളെ വിടുക അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധ്യാപകനും അത്യാവശ്യം നല്ല വിവരോം വിദ്യാഭ്യാസോം ഉള്ള ആൾക്കാരായിരിക്കും പിന്നെ അവർക്ക് സാലറിയും അതായത് നമ്മൾ നല്ലോണം പഠിച്ച് അങ്ങനൊക്കെയാണല്ലോ ഡൊണേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോഴാണല്ലോ അവർക്ക് സാലറി ആവുക അപ്പം കുട്ടികളെയൊക്കെ നല്ലോണം കൂടുതലും പഠിപ്പിക്കാൻ ഉള്ള ശ്രമത്തിലായിരിക്കും അവർ